തുന്നലിനെ കുറിച്ചൊക്കെ പറയുകയാണങ്കിൽ ഇപ്പോൾ ഓരോരുത്തര്ക്കും ഇഷ്ടമുള്ള കളര് എന്താന്ന് വെച്ചാല് ഒരേ ഒരെയാള്ക്കാരെ നമ്മൾ കാണുമ്പോള് നമുക്ക് മനസിലാകുമല്ലോ അപ്പോൾ അവര്ക്കിഷ്ടമുള്ള കളര് നോക്കി അവരുടെ നിറം അനുസരിച്ച് നമ്മൾ തുണി എടുത്ത് തുന്നി കൊടുക്കാറുണ്ട് പിന്നെ നല്ല നിറമുള്ളവര്ക്ക് അതിന്റെതായ കളറിലുള്ളത് എടുക്കും നിറംകുറഞ്ഞവര്ക്ക് അതിന്റെ കളര് എടുക്കും പിന്നെ എല്ലാം തയ്ച്ചു നന്നായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അവരെ കളറനുസരിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഇനി കളര് കളര് എങ്ങനെ എന്നു പറഞ്ഞാല് ഏറ്റവും ഇഷ്ടമുള്ള കളറെന്നു പറഞ്ഞാല് നമ്മൾ കടയിലേക്ക് പോയിട്ട് നമുക്കിഷ്ടമുള്ള കളര് നോക്കി എടുക്കും എനിക്ക് ഒരുപാട് കളറുകള് ഇഷ്ടമാണ് എന്നാലും എടുത്തു പറയുകയാണെങ്കില് മഞ്ഞ എനിക്കിഷ്ടമാണ് പിന്നെ ഓറഞ്ച് കളറിഷ്ടമാണ് പൊന്മാന്നീല ഇഷ്ടമാണ് നേവി ബ്ലു നീല ഇഷ്ടമാണ് ഒരുപാട് കളറൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ ചുവപ്പെനിക്ക് അത്ര ഇഷ്ടമല്ല റെഡ് കളര് എനിക്ക് വലിയ താല്പര്യമുള്ള കളറല്ല എന്നാലും ഉപയോഗിക്കാറുണ്ട് എടുക്കാറും ഒക്കെയുണ്ട്